ആദ്യം തന്നെ ആ പരിക്കേൽക്കുന്ന വ്യക്തിയെ കാറ്റും വെളിച്ചമുള്ള ഒരു സ്ഥലത്തിരു കൊണ്ടിരുത്തുക ഇച്ചി ശുദ്ധവായു ശ്വസിക്കട്ടെ അതിന് ശേഷം നെഞ്ചത്ത് മസ്സാജ് ചെയ്ത് കൊടുക്ക ഇപ്പോള് പൊട്ടലോ മുറിവോ വല്ലതുമാണെങ്കില് എന്തെങ്കിലും മരുന്ന് കൊണ്ട് വച്ചുകെട്ടിയതിന് ശേഷം എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്കെത്തിക്കുക ഇപ്പോള് പെട്ടെന്ന് ബോധരഹിതനായി വീഴുകയാണെങ്കിലും ആദ്യമേ നെഞ്ചത്തൊന്ന് കയറി മസ്സാജ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം കണ്ണ് തുറന്നില്ലെങ്കിൽ കൃത്രിമ ശ്വാസം നൽകണം പെട്ടെന്നുള്ള സർവ്വീസ് സി ആർ പി എഫ് കൊടുക്കുക അതുപോലെ ഇപ്പോള് പരിക്കേൽക്കുകയാണെങ്കിലിപ്പോള് കൈക്കോ കാലിനോ ചെറിയ പരി മുറിവ് വരുകയാണെങ്കില് നമുക്ക് തന്നെ കൊണ്ടിങ്ങനെ മരുന്നു വച്ചു കെട്ടാവുന്നതേ ഉള്ളു ഇപ്പോള് അല്ലാതെ ഈ വളരെ വലിയ മുറിവ് സംഭവിക്കുകയാണങ്കില് പെട്ടന്നെന്തെങ്കിലും കാല് മടക്കി കാലിനാണു മുറിവ് പറ്റിയതെങ്കില് കാല് മടക്കിവയ്ക്കുക അല്ലെങ്കിൽ കാലിനെന്തെങ്കിലും പ വച്ചു കെട്ടിയതിനുശേഷം എത്രയും പെട്ടെന്നുതന്നെ അദ്ദേഹത്തെ ആശുപത്രിയിലെത്തിക്കാൻ ശ്രമിക്കുക